എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ് ബൈക്ക് ഓടി ഓടിക്കുന്നത് എന്നു പറഞ്ഞാൽ ആക്ടീവാ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയത് എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത് എനിക്ക് ഏറ്റവും എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് ഏറ്റവും യാത്രാ സൗകര്യം ബൈക്കിന് പോകുന്നതാണ് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ ഹോസ്പിറ്റലിൽ എനിക്ക് കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നു ഞാൻ എല്ലാ ദിവസവും എൻ്റെ വണ്ടി ഭംഗിയായി വെള്ളം കഴുകി കഴുകി വൃത്തിയാക്കാറുണ്ട് പിന്നെ അതെ മറ്റുള്ളവർക്കും കൂടെ ഞാൻ വരുമ്പോഴത്തേക്കും അവർ ആരെങ്കിലും റോഡിൽ നിൽപ്പുണ്ടെങ്കിൽ അവരെയും കൂടെ എനിക്ക് കയറ്റിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ബൈക്കാണ്